ഓക്കെ ഞാൻ ഒരു ലാൻഡ് പർച്ചേസ് ചെയ്യാൻ വേണ്ടി പ്ലാൻ ഇട്ടിട്ടുണ്ട് കോഴിക്കോട് സോ പറ്റിയ പറ്റിയ പ്ലോട്ടുകളെപ്പറ്റി എൻക്വയറി ചെയ്യാൻ വേണ്ടി വിളിച്ചത് ആയിരുന്നു ആ ഉണ്ട് ആ ഉണ്ട് ഞാൻ മാനാഞ്ചിറ അടുത്ത് ഏതെങ്കിലും നല്ല സ്പോട്ടുകൾ ഉണ്ടോയെന്ന് ചെക്ക് ചെയ്തിട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതുപോലെത്തന്നെ കല്ലായി ബേപ്പൂർ ഈ ഒരു സ്ഥലങ്ങൾ ഒക്കെ ആണ് എനിക്ക് പ്രിഫറൻസ് ഉള്ളത് അതുപോലെത്തന്നെ അതുപോലെത്തന്നെ ആ അതുപോലെത്തന്നെ അല്ല വീട് അല്ല നമ്മളിപ്പോൾ വീട് നമ്മൾ പണിയാൻ വേണ്ടിയാണ് അപ്പോൾ നമുക്ക് ആദ്യം ഒരു പ്ലോട്ട് ആണ് പ്ലോട്ട് മാത്രം മതി അതായത് എല്ലാ ഫെസിലിറ്റി ഫെസിലിറ്റീസ് ഒക്കെ അവൈലബിൾ ആയിട്ടുള്ള അതായത് ഇപ്പോൾ നമ്മൾക്ക് ഇപ്പോൾ ഇന്നു പെട്ടെന്ന് ഇലക്ട്രിസിറ്റി എടുക്കാനും അതുപോലെ വാട്ടർ ആണെങ്കിലും ആ അതുപോലെ അടുത്ത് തന്നെ സ്കൂൾ ഹോസ്പിറ്റൽ അങ്ങനെ എല്ലാ ഫെസിലിറ്റിയും കിട്ടും ആ അതുതന്നെ വേണം എനിക്ക് ഒരു മുപ്പത് സെൻറ്റ് ആണ് ഞാൻ നോക്കുന്നത് ആ അതെ അതെ ഇനി നമ്മൾക്ക് പറ്റിയ വിലയ്ക്ക് കിട്ടുകയാണെങ്കിൽ ഒരു അമ്പത് വരെ എടുക്കാനും ഞാൻ ഓക്കെ ആണ് മുപ്പത് ടു അമ്പതെന്ന് ഉള്ള ആ ഒരു റേഞ്ചിൽ ആണ് നിൽക്കുന്നത് ഓക്കെ ഓക്കെ ഓക്കെ അത് ഒരു കുറച്ച് കൂടുതലാണെന്ന് തോന്നുന്നു കാരണം കല്ലായിയെന്ന് പറയുമ്പോൾ കുറച്ചും കൂടി ഔട്ട് ഓഫ് സ്റ്റേഷൻ ആണല്ലോ ആ അല്ല അങ്ങനെ അല്ല അത് ഓക്കെ സ്ഥലത്തിൻ്റ കാര്യമാണ് ഞാൻ പറഞ്ഞത് കുറച്ചുകൂടി സിറ്റിയിലേക്ക് അടുത്ത് വരുന്നത് റേഞ്ചിൽ ഒക്കെ ആണെങ്കിൽ നമ്മൾക്ക് ആ ഒരു എമൗണ്ട് ഓക്കെ ആയിരുന്നു ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഞാൻ പറയാൻ ആണെങ്കിൽ നടക്കാവ് അവിടെയൊക്കെ കിട്ടുകയാണെങ്കിൽ തന്നെ നമുക്ക് ഇപ്പോൾ സിറ്റി തൊട്ടടുത്ത് തന്നെ അല്ലെ ഒന്നോ രണ്ടോ കിലോ മീറ്റർ അല്ലെ ഉള്ളൂ അവടേയ്ക്ക് ഒക്കെ

ഓക്കെ ഓക്കെ ഓക്കെ മതി മതി പിന്നെ അതുപോലെ ഞാൻ പറയുമ്പോൾ ആ ഞാൻ പറയുമ്പോൾ ഫെസിലിറ്റീസ് എല്ലാം അവൈലബിൾ ആയിരിക്കണം ഓക്കെ ഓക്കെ

ഓക്കെ ഓക്കെ ആ മതി മതി ഓക്കെ അങ്ങനെ ആണെങ്കിൽ ഞാൻ പറയാം ആ നിങ്ങൾ ശരി ശരി അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഡീറ്റെയിൽസ് എല്ലാം എനിക്ക് ഒന്ന് ആ ചെയ്താൽമതി ചെയ്താൽമതി ശരി ചെയ്താൽമതി ഓക്കെ ഓക്കെ ശരി ഓക്കെ മതി മതി അങ്ങനെയാണെങ്കിൽ ഞാൻ നേരിട്ട് നിങ്ങളുടെ ഓഫീസിലേക്ക് എത്തിയേക്കാം നമുക്ക് നേരിട്ട് കണ്ട് സംസാരിക്കാം

ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ